ഹലോ ആ ഹലോ പറയു ആ അതേ മെക്കാനിക്കാണ് ആ പറഞ്ഞോളു എൻ്റെ പേര് ശ്രേയസ്

മാരുതി എയിറ്റ് ഹൺഡ്രഡാണോ

ആണോ ഏതാണ് മോഡലേതാണ് വണ്ടീൻ്റെ നൈന്റി സിക്സ് മോഡൽ വണ്ടിയാണോ ആ വേറെന്താണ് കംപ്ലൈൻറ്റായിട്ട് വരുന്നത് ആണോ ബാറ്ററി ഒക്കെ നോക്കിയതാണോ ചെക്കെയ്തെയാണോ അതേ അല്ലേ ആ ഓക്കെ മേപ്പാടിയില്നിന്ന് എടുത്തതാണോ മ്മ് മ്മ് മ്മ് ആണോ ഓയിലൊക്കെ കറക്റ്റായിട്ട് നോക്കിയതാണോ ഓയിൽ നീ എടുത്ത വണ്ടിയാണോ ആ ഓക്കെ ഇപ്പോള് റണ്ണിങ്ങില് വണ്ടി വണ്ടി ഓഫായി പോകുന്ന ഇഷ്യൂ മാത്രമേ ഉള്ളോ അതെ അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോള് നമുക്കൊന്ന് വന്നുനോക്കിയാല് നോക്കാമായിരുന്നു ബാറ്റെറീൻ്റെ ഇഷ്യൂ ആണോ അതോ കാർ ബാറ്ററിയില് ഇത് മാനന്തവാടി മാനന്തവാടി എരുമത്തെരുവ്

എന്നാല് നാളെ എത്തിച്ചോ കുഴപ്പമില്ല നാളെത്തന്നെ സെറ്റാക്കാം നമുക്ക് ഫുള്ളൊന്നഴിച്ച് നോക്കിയിട്ട് നമുക്കെന്താണ് ആ ഒന്നുമല്ലെങ്കില് കാർ ബാറ്ററീൻ്റെ ഇഷ്യൂ ആയിരിക്കും അല്ലെങ്കില് നമുക്ക് ഒന്ന് അഴിച്ചുനോക്കുമ്പോള് മനസ്സിലാവുമായിരിക്കും ആ എന്നാല് നിങ്ങളൊന്നു വണ്ടി എത്തിച്ചേക്ക് എന്നിട്ട് നമുക്ക് ഫുൾ ചെക്കെയ്തോക്കി ആ ഈ നമ്പറില് വിളിച്ചാല് മതി എന്നിട്ട് നമ്മള് ക്രോസ്സ് ചെക്കെയ്തുനോക്കാം ആ ഓക്കെ ഷോപ്പൊന്പതു മണിക്ക് ഓപ്പണാവും

ആ ഓക്കെ